മലയാളം കേരളത്തിൻ്റെ തനതായ ഭാഷയാണ് ദ്രാവിഡ ഭാഷയില് നിന്നാണ് ആണ് മലയാളം ഉരുത്തിരിഞ്ഞുണ്ടായത് മലയാളഭാഷ പഠിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം പല ഭാഷകളിൽ നിന്നും കടമെടുത്ത കട്ടിയേറിയ വാക്കുകളും വലിയ വലിയ അക്ഷരങ്ങളുമൊക്കെയുള്ളതുകൊണ്ട് പഠിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് മലയാളഭാഷയിൽ സംസ്കൃത സംസ്കൃതത്തിൽ നിന്നുള്ള ഒരുപാട് പദങ്ങളുമുണ്ട് സംസ്കൃതവും കന്നടയും തമിഴുമെല്ലാം കൂടി കൂടി വേറെയൊരു രീതിയിലേക്ക് വന്നതാണ് മലയാളം ഭാഷ മലയാളഭാഷയുടെ വ്യാകരണത്തിൽപ്പെട്ടതാണ് വൃത്തങ്ങള് അതുപോലെ സന്ധികള് പിന്നെ ആഗമസന്ധി ദ്വിത്വസന്ധി എന്നൊക്കെ പറഞ്ഞ് കുറേ സന്ധികള് അതുപോലെ വൃത്തം യജപാതാതി തദഭോഗയ എന്ന വൃത്തം പിന്നെ മലയാളഭാഷ മലയാളഭാഷയിൽ പദ്യം നന്നായി ചെയ്യാൻ പറ്റും ഗദ്യഭാഗങ്ങള് നന്നായി ചെയ്യാൻ പറ്റും ഭാഷാസ്കൂളുകളൊക്കെ മലയാളത്തിൽ തന്നെയാണ് നടത്തുന്നത് എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷ് ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളും സ്കൂളുകളിൽ മലയാളം ഭാഷയിൽ പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മാത്രമാണ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നത് മലയാളത്തിലെ പദ്യങ്ങൾക്കും ഗദ്യങ്ങൾക്കുമൊക്കെ വല്ലാത്തൊരു മനോഹാരിതയാണ് ഓരോ വർണ്ണനകൾക്കും വളരെ നന്നായി വർണ്ണിക്കാൻ കഴിയും ഏറെ സവിശേഷമായ സവിശേഷമായ വാക്കുകളിലൂടെ മലയാളഭാഷയെ വർണ്ണിക്കാൻ കഴിയും മലയാളഭാഷയില് പ്രകൃതിയെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും നാരികളെക്കുറിച്ചുമൊക്കെ വളരെ നന്നായി വർണ്ണിക്കാൻ കഴിയും മലയാളഭാഷയുടെ

പിതാവെന്ന് അറിയപ്പെടുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് അദ്ദേഹം അതിലുള്ള അക്ഷരങ്ങളും നല്ല അക്ഷരമാലകളുമൊക്കെ റെഡിയാക്കി വളരെ നന്നായി എഴുതാനും വായിക്കാനുമൊക്കെ പഠിപ്പിച്ചു മലയാളഭാഷയിൽ ആധുനികമായി നല്ല സവിശേഷമായ രൂപത്തിൽ വാക്കുകളുടെ പ്രൗഢത ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഒ എൻ വി അതുപോലെ തകഴി അങ്ങനത്തെ കുറേ കലാകാരന്മാർ വളരെ നല്ല കൃതികളും നല്ല നല്ല സിനിമകളുമൊക്കെ ആ രീതിയിൽ